ഇപ്പോൾ ഞാനങ്ങനെ നടത്തിയൊരു മലകയറ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ട് അപ്പോൾ കൂടുതലും നമ്മളെ അങ്ങനെ ആകർഷിച്ചൊരു സ്ഥലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോടു നിന്ന് ആയതുകൊണ്ട് ഞങ്ങൾ വയനാട് തന്നെ ആണ് വായനാട്ടിലിപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ നമ്മളങ്ങനെ ആകർഷിച്ചിട്ടുണ്ട് എന്നാലും കൂടുതലും നമുക്ക് പറയാൻ കഴിയുന്നൊരു സ്ഥലം എന്നു പറഞ്ഞാൽ കുറുമ്പാലക്കോട്ട തന്നെ ആണ് കാരണം നമ്മള് വെളുപ്പിന് എണീറ്റ് കുറുമ്പാലക്കോട്ട ഒക്കെ കയറാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മള് തലേദിവസമേ പോയി അവിടെ ഒരു റിസോർട്ടിൽ സ്റ്റേ ചെയ്തിട്ട് അടുത്ത ദിവസം രാവിലെ വെളുപ്പിന് എണീറ്റാണ് നമ്മള് കുറുമ്പാലക്കോട്ട കയറാൻ പോകുന്നത് അപ്പോൾ പോകുമ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ നമ്മള് നടന്ന് രാവിലെ പോയി മലയൊക്കെ കയറി ഏറ്റവും ടോപ്പ് വരെ വണ്ടി പോയിരുന്നു എന്നാലും കുറച്ച് നമുക്ക് നടക്കേണ്ടതായിട്ട് വന്നു അതെന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു മഴയൊക്കെ ആയിരുന്നതുകൊണ്ട് തന്നെ നല്ല സ്ലിപ് ആകുന്നൊക്കെയുണ്ടായിരുന്നു അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ നമ്മള് അവിടെയും ഇവിടെയും പിടിച്ചൊക്കെയാണ് കയറി അങ്ങെത്തിയത് മേലെ ചെന്നുകഴിഞ്ഞു കുറച്ചൊരു നേരം ഒന്ന് വെളുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പഴാണ് നമുക്ക് അവിടത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായത് കാരണം അടിപൊളി വ്യൂ ആയിരുന്നു അവിടെ നമ്മൾ എന്താ പറയുക മുകളിൽ നിന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ താഴെ ഈ മേഘങ്ങളും കാര്യങ്ങളൊക്കെ മൊത്തം താഴേക്ക് ഇറങ്ങി വരികയും നല്ല എന്താ പറയുക വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അത് കണ്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താ പറയുക മനസ്സിന് നല്ല സന്തോഷൊക്കെ തോന്നി നമ്മള് രാവിലെ എണീറ്റ് പോയതിനു ഒരു അർത്ഥം ഉണ്ടെന്ന് അപ്പോഴാണു നമുക്ക് മനസ്സിലാവുന്നത് അപ്പം ഞാന് ഇങ്ങനെ പോയൊരു മല കയറ്റത്തിൻ്റെ ഏറ്റവും നല്ലൊരു അനുഭവം അതുതന്നെ ആയിരുന്നു